സർക്കാർ പദ്ധതികളുടെ കീഴിൽ നിൽക്കുന്ന അതായത് ആരോഗ്യ സേവനങ്ങളുടെ ഗുണ നിലവാരം എങ്ങനെയാണെണ് ചോദിച്ചിട്ടുണ്ടെങ്കില് നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കില് അതായത് ഈ പാവങ്ങക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരം തന്നെയാണ് നമുക്ക് ഈ സർക്കാർ അതായത് വെറുതെ നമുക്ക് കാണിക്കാനുള്ള ഡോക്ടറെ കാണിക്കാനും മരുന്നുകൾ ലഭിക്കുന്ന അതൊക്കെ നമുക്ക് വലിയ ഒരു ഉപകാരം തന്നെയാണ് പക്ഷെ അതില് ഒരുപാട് പോരായ്മകൾ കാര്യങ്ങൾ നമുക്ക് ക്യൂ നിക്കണം ഒരുപാട് ക്യൂ നിക്കണം ഒരുപാട് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് പക്ഷേന്ന് വച്ചിട്ടുണ്ടെങ്കില് എനിക്ക് കൂടുതലും സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ മെയിനായിട്ട് ഇഷ്ടമില്ലാത്തത് ഒരുപാട് ക്യൂ നിൽക്കണം അപ്പം നമ്മളിപ്പോൾ ഒന്ന് വയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും പരിഗണിക്കില്ല നമ്മൾ ക്യൂ നിന്നിട്ട് ടോക്കൺ എടുത്തിട്ട് മാത്രമേ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ക്യൂ നിന്നിട്ട് നേരെ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് അവിടെയും ക്യൂവാണ് അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചു കഴിയുമ്പത്തേനും താഴെ വന്ന് മരുന്ന് മേടിക്കണം അതും ക്യൂവാണ് പക്ഷെ നമ്മൾ സ്വകാര്യ ആശുപത്രിന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കാളും എല്ലാം കൊണ്ടും നമുക്ക് വലിയൊരു സൗകര്യമാണ് കുറച്ച് പൈസ കൂടുതലാണെങ്കിലും നമുക്കിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ ആണെങ്കിലും അവിടെ ഓരോ ഡോക്ടറും ഓരോ സ്ഥലത്തായിരിക്കും നമുക്ക് അപ്പോൾ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ടോക്കൺ എടുക്കാം നമുക്ക് ഡോക്ടറെ കാണിക്കുക മരുന്ന് മേടിക്കുക നമുക്ക് വരാം അപ്പം ആ ഒരു ഇതിൽ നിന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും സ്വകാര്യ കേന്ദ്രങ്ങൾ തന്നെയാണ് എനിക്കിഷ്ടം